ഞാനൊരു പീ എസ് സി ഉദ്യോഗാർത്ഥിയാണ് പക്ഷേ എയ്ജ് നാൽപ്പതായി എങ്കിൽക്കൂടി കൂടുതലായിട്ടും ടെക്സ്റ്റുകൾ വായിച്ചത് ഞാൻ എ ഏയും ബീ എഡ്ഡുമൊക്കെ കഴിഞ്ഞതായതുകൊണ്ടു തന്നെ കൂടുതലും സോഷ്യൽ സയൻസിലാണ് പൊളിറ്റിക്കൽ സയൻസും സോഷ്യൽ സയൻസുമാണ് എന്റെ ഡിഗ്രികൾ പൊളിറ്റിക്കൽ സയൻസിൽ മെയിൻ ബിരുദവും ബിരുദാനന്തര ബിദുരവും ബിരുദവും പൊളിറ്റിക്കൽ സയൻസിലും ബീ എഡ് സോഷ്യൽ സയൻസിലുമാണ് അതു കൊണ്ടു തന്നെ കൂടുതലുമായിട്ട് കൂടുതലും സോഷ്യൽ സയൻസുമായി പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളാണ് വായിക്കുന്നത് അതിൽ കൂടുതലും പിന്നീട് ആദ്യമങ്ങനെ ഉപയോഗിച്ചു കൊണ്ടിരുന്നെങ്കിൽപ്പോലും പിന്നീട് പിന്നീട് പീ എസ് സീയുമായി ബന്ധപ്പെട്ട് എൽ ഡീ സിയുടെയും മറ്റു റാങ്ക് ഫയൽസുകളാണ് കൂടുതലുപയോഗിക്കാൻ തുടങ്ങിയത് എങ്കിലും പുസ്തകത്തിൽ ചരിത്രപരമായ പുസ്തകങ്ങളായതുകൊണ്ട് ചരിത്രപരമായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കുറേ സംഭവങ്ങളാണ് അതു മെയിനായിട്ടും പണ്ടു കാലത്തെ രാജവംശങ്ങൾ അതുപോലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അതുപോലെതന്നെ രാഷ്ട്രീയം മെയിനായിട്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത പുസ്തകങ്ങളാണ് പിന്നെ സമ്പദ് വ്യവസ്ഥയുമായിട്ട് ബദ്ധപ്പെട്ടും കാർഷിക വിളകൾ കാലാവസ്ഥ മണ്ണിനങ്ങൾ നദികൾ ഭൂപ്രകൃതി ഇന്ത്യയുടെ ഭൂപ്രകൃതി ഏതെല്ലാമാണ് എത്രതരമാണ് എങ്ങനെ ഇന്ത്യയുടെ ഭൂപ്രകൃതി കേരളത്തിന്റെ ഭൂപ്ര ഞങ്ങൾ കേരളീയരായതു കൊണ്ടു തന്നെ കേൾസ് ഞങ്ങളുടെ സംസ്ഥാനത്തെക്കുറിച്ചും പഠിക്കാനുണ്ടായിരുന്നു അപ്പോൾ കൂടുതൽ ഇന്ത്യയുടെ ഭൂപ്രകൃതി ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ ആറായിട്ട് മെയിനായിട്ട് തരം തിരിച്ചിരിക്കുന്നു എന്നും അത് മെയിനായിട്ടും ഹിമാലയ പർവ്വതങ്ങൾ പീഠഭൂമികൾ പിന്നേ മരുഭൂമി തീരപ്രദേശം സമതലങ്ങൾ എന്നിങ്ങനെയൊക്കെ ഭൂപ്രകൃതിയെ തരം തിരിച്ചിരിക്കുന്നു പിന്നേ അതുപോലെ അവിടുത്തെ സമ്പദ് വ്യവസ്ഥ അവിടുത്തെ കൃഷിരീതി പിന്നെ നദികളെ കുറിച്ച് ഹിമാലയൻ നദികളുണ്ട് ഉപദ്വീപിയൻ നദികളുമുണ്ട് ഇവയേക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹിമാലയൻ നദികളെന്നു പറയുന്ന വർഷം മുഴുവനും ഫലം തരുന്നതാണെന്നും ഹിമാലയൻ നദികൾ സോറി വർഷം മുഴുവനും അതിൽ നിന്നും നമുക്ക് ജലം ലഭി ജലം ലഭിക്കുന്ന നദികളാണ് ഹിമാലയൻ നദികൾ പെറന്നിയൽ റിവേഴ്സെന്നും അതുപോലെ അതേസമയത്ത് സൗത്ത് ഇന്ത്യൻ നദികളെന്നു പറയുമ്പോൾ വർഷം മുഴുവൻ ഉപദ്വിപീയൻ നദികളെന്നു പറയുന്നത് വർഷം മുഴുവനും ഫലമില്ല സോറി മ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നില്ല അത് മഴയെ മൺസൂൺ മഴയെ ആശ്രയിച്ചാണ് അവ നിലകൊള്ളുന്നതെന്നാണ് അതായത് ഹിമാലയൻ നദികൾ വർഷം മുഴുവനുമൊഴുകാൻ കാരണം ഈ മൺസൂൺ മഴ കാലഘട്ടത്തിൽ മഴവെള്ളം ലഭിക്കുന്നതിനാലും പിന്നീടുള്ള കാലഘട്ടത്തിൽ മ മഴ മഴക്കാലം ആറു മാസത്തെ മഴക്കാലം കഴിയുമ്പോഴേക്കും പിന്നീട് നദികളിൽ നിന്നു മഞ്ഞുരുകി മഞ്ഞു വീഴ്ച്ച മൂലം മഞ്ഞുരുകി നല്ല വെയിലടിക്കുമ്പോൾ മഞ്ഞുരുകി ആണ് പിന്നീടുള്ള കാലഘട്ടത്തിൽ നദി കര കവിഞ്ഞുഴുകുന്നതിന്നും നമ്മൾ പഠിക്കാറുണ്ട് അപ്പം അതേസമയത്ത് ഉപദ്വീപൻ നദികൾക്കാകെയുള്ള ജല ശ്രോതസ്സെന്നു പറയുന്നത് മൺസൂൺ മഴയെ മാത്രം ഡിപ്പെൻറ്റ് ചെയ്താശ്രയിച്ചാണെന്നുള്ളതൊക്കെ പഠിക്കുന്നു അങ്ങനെ നദികളെക്കുറിച്ച് കാലാവസ്ഥയെക്കുറിച്ചും പിന്നെ പീഠഭൂമികളെക്കുറിച്ചും മണൽ അങ്ങനെയുള്ള ഓരോന്നിനെക്കുറിച്ചും നമ്മൾ പഠിക്കുന്നുണ്ട് പിന്നീട് അതു കഴിയുമ്പോൾ കേരളത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും കേരളത്തെയും മൂന്നായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് മലനാട് ഇടനാട് തീരപ്രദേശം എന്നിങ്ങനെയൊക്കെയാണ് അതിലെ പിന്നേ ഇടനാട് പിന്നേ മലനാട് ഇടനാടൊക്കെ സോറി നമ്മുടെ പൂർവ്വ പശ്ചിമ ഘട്ടമൊക്കെ വളരെ തീര ലോല പ്രദേശങ്ങളാണ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അവിടെ ലോലപ്രദേശമാണെന്ന ഗാഡ്ഗിൽ റിപ്പോട്ട് ഉണ്ടായിട്ടു പോലും അതു കേൾക്കാതെ കണ്ട് അവിടെ നിന്നു മണ്ണു വളരെ വലിയ വലിയ ബിൽഡിങ്ങുകളും വലിയ എന്താ നിർമ്മാണപ്രവർത്തനങ്ങളും ചെയ്തതിന്റെ ഫലമായിട്ട് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഇത് പ്രകൃതി ക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് പുസ്തകങ്ങളിലൂടെ കുറേ അന്നേ പഠിച്ച കാര്യമാണ് ഗാർഗിൽ റിപ്പോട്ടൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് അതിനകത്ത് ആ റിപ്പോട്ട് ഗാഡ്ഗിൽ കമ്മീഷൻ്റെ അദ്ധ്യക്ഷനായ ഗാഡ്ഗിൽ സമർപ്പിച്ച റിപ്പോട്ടിൽ പറഞ്ഞിരുന്നു നമ്മുടെ പ്ര പരിസ്ഥിതി ലോല പ്രദേശങ്ങളായ ഈ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രദേശങ്ങളെല്ലാം സ്പെസിഫൈ ചെയ്തു പറഞ്ഞിരുന്നു ഇതു സൂക്ഷിച്ചില്ലയെന്നുണ്ടെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ നശിച്ചു പോകുമെന്ന് അപ്പോഴേ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സെപറേറ്റ് പ്രത്യേകം പ്രത്യേകം കാരണം ഈ വിഷയവുമായി എക്കണോമിക്സുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നീട് നമ്മൾ കൂടുതൽ പിന്നെ പൊളിറ്റിക്സ് രാഷ്ട്രീയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ നമ്മുടെ ഭരണഘടന ഒക്കെ നമ്മൾ പഠിക്കാറുണ്ട് മൗലിക അവകാശങ്ങൾ ഒക്കെ പഠിക്കാറുണ്ട് പ്രത ഫണ്ടമെന്റൽ റൈറ്റ്സുമൊക്കെ പഠിക്കാറുണ്ട് പതിന്നാല് തൊട്ട് മുപ്പത്തിയാറ് മുപ്പത്തി അൻ ച് മുപ്പത്താറ് വരെയുള്ള പന്ത്രണ്ട് തൊട്ട് ഭാഗങ്ങൾ മൗലിക അവകാശങ്ങൾ ഫണ്ടമെന്റൽ റൈസാണെന്നൊക്കെ പഠിക്കുന്നുണ്ട് അതിനകത്ത് ഫ്രീഡത്തെക്കുറിച്ചും പിന്നേ ചൂഷണത്തിനെതിരായ റൈറ്റ്സും ഒക്കെ ഇമ്പോർട്ടൻറ്റ് നൽകി പഠിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് ഏതു മതവും സ്വീകരിക്കാനും വിശ്വസിക്കാനുമത് പ്രചരിപ്പിക്കാനുള്ള അവകാശത്തെക്കുറിച്ചും ആരും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്താൻ പാടില്ല ഇങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി കാര്യങ്ങൾ കുട്ടികളുടെ ബാലാവകാശങ്ങളൊക്കെ പൊളിറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട് പൊളിറ്റിക്സ് ടെക്സ്റ്റുകളിൽ പിന്നേ അതുമാത്രമല്ല പൊളിറ്റിക്സിൽ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിനുമൊപ്പം നമ്മൾ പ്രാധാന്യം നൽകി പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് പിന്നേ ആ പ പല ആ നമ്മളുടെ എങ്ങനെയാണ് ക്വാസി നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ ഏത് രീതിയിലുള്ളയാണെന്നു ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയാണ് അതുപോലെ എഴുതപ്പെട്ട ഭരണഘടനയും ലിഖിത ഭരണഘടനയാണെന്ന് പഠിക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഇന്ത്യൻ ഭരണഘടന ജനാധിപത്യ അധിഷ്ടമാ നമ്മുടെ രാജ്യം ജനാധിപത്യ അധിഷ്ടിതമാണെന്നും പ്രസിഡെൻഷ്യൽ ഭരണമുണ്ടെന്നും പിന്നെ പ്രസിഡൻറ്റാണ് അതിന്റെ തലവൻ എന്നും ഒക്കെ പഠിക്കുന്നുണ്ട് അതുപോലെ നമ്മൾക്ക് ക്വാസി ഫെഡറലാണെന്നു പഠിക്കുന്നുണ്ട് അതുപോലെ ഭരണഘട സുപ്രീം കോടതി ആണ് നമ്മുടെ എല്ലാത്തിൻറ്റേയും അല്ലേ നീതിന്യായ പരമോന്നത നീതിന്യായ കോടതി എന്നൊക്കെ നമ്മൾ കോൺസ്റ്റൂഷൻ പഠിക്കുമ്പോൾ ഇവയൊക്കെ പഠിക്കാറുണ്ട് പിന്നീട് നമ്മൾ ഈ ഓരോ രാജ്യങ്ങളിൽ നിന്നു നമ്മൾ ബോറോ ചെയ്തിട്ടുണ്ട് ഓരോ ഭരണഘടനയുടെ പാട്ട്സ് അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് പിന്നിന്ത്യയുടെ ചരിത്രത്തേക്കുറിച്ച് കുറിച്ച് പഠിക്കുമ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര സമരത്തെക്കുറിച്ചും സ്വാതന്ത്രസമര നേതാക്കന്മാരെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് നമ്മളുടെ രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷികളായ ധാരാളം ധീര മഹാത്മാക്കളെക്കുറിച്ചും നമ്മൾ പഠിക്കുന്നുണ്ട് അതിൽ വന്നേക്കണത് കൂടുതൽ ഗാന്ധിജി വന്നേക്കുന്നു ഗാന്ധിജി നമ്മുടെ രാഷ്ട്രത്തിനു വേണ്ടി ഒരുപാടൊരുപാടൊരുപാട് മഹാരഥന്മാർ പോരാടിയതിൽ അവസാനം മഹാത്മാഗാന്ധി അവസാനം വരെയും പോരാടി നമുക്ക് നേ സ്വാതന്ത്രം നേടിത്തന്നു അതുകൊണ്ട് നമ്മുടെ രാഷ്ട്ര ത പിതാവെന്നു നമ്മൾ വിളിക്കുമൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നുണ്ട് പിന്നീട് വന്ന നേതാക്കന്മാരെക്കുറിച്ച് നമ്മുടെ ആ ഭരണ സമ്പ്രദായത്തെക്കുറിച്ചുമൊക്കെ പഠിക്കുന്നുണ്ട് പ്രധാനമന്ത്രി ലോക സഭ രാജ്യസഭ അപ്പോൾ ഇതൊക്കെ പാർലമെൻറ്റിനേക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ട് ആ പാർലമെൻറ്റിന്റെ തലവൻ അതായത് പാർലമെൻറ്റിന്റെ തലവൻ പ്രധാനമന്ത്രിയെന്നും അതുപോലെ കേരളത്തിൽ സംസ്ഥാനത്തിന്റെ രാജ്യസഭ സോറി ലെയ്സ്ലേറ്റീവ് അസമ്പ്ലി അതിന്റെ തലവൻ നമ്മുടെയെല്ലാ സംസ്ഥാനത്തിന്റെ തലവനായിട്ട് നമ്മൾ ഇലക്റ്റഡ് ഹെഡ് ചീഫ് മിനിസ്റ്ററാണെന്നുമൊക്കെ പഠിക്കുന്നുണ്ട് ഗവർണറുണ്ട് നമ്മുടെ രാജ്യത്തിൽ പ്ര പ്രസിഡൻറ്റിനെ കൊടുത്തിരിക്കുന്ന അധികാരം പോലെ സംസ്ഥാനങ്ങളുടെ തലവൻ ഗവർണറാണ് ഇതൊക്കെ നമ്മൾ പൊളിറ്റിക്സിലും അതുപോലെ ചരിത്രത്തിലെ ഏടുകളിലൂടെ പോകുമ്പോൾ യുദ്ധങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് പിന്നീട് ഇപ്പം പിന്നെപ്പിന്നെ നം ഇപ്പം അങ്ങനെ പഠനവുമായി ബന്ധപ്പെട്ടു പോയി കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു പിന്നെ ഇപ്പം നമ്മൾ മതപരമായ കുറേ കാര്യങ്ങളുമൊക്കെ പഠിക്കുന്നുണ്ട് കാരണം വിശുദ്ധരുടെ ജീവിത രീതികൾ കാരണം നമുക്ക് മുൻപോട്ട് വിശുദ്ധരെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നു വിശുദ്ധ ഓരോ വിശുദ്ധർ എങ്ങനെ വിശുദ്ധനായെന്നും മാക്മി മാക്മില്യൻ കോൾബേ ഉൾപ്പടെയുള്ള ചില കുറച്ച് നമുക്കാ കഴിയുന്ന കുറേ വിശുദ്ധനായ അം അമ്മ ത്രേസ്യ ത്ര്യേസ്യാമ്മ അൽഫോൻസാമ്മ ചാ ചാവറെയച്ചൻ ഇങ്ങനെയൊക്കെ ഇവരുടെയൊക്കെ ജീവിതം ജീവിത ചരിത്രങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട് വായിക്കാറുണ്ട് പിന്നെ സീ സീ സീ ഇത് കാത്തിക്കിസമോഫ് ഓഫ് കാതലിക് ചർച്ച്

കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ വായിക്കാറുണ്ട് അതു കാരണം കുട്ടികളെ വളർത്തുമ്പോൾ എങ്ങനെയൊക്കെ എന്തൊക്കെ അറിഞ്ഞിരിക്കണം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഗ്രന്ഥങ്ങളാണ് വായി വായിച്ചു കൊണ്ട് ഇരിക്കുന്നത്